ഒമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആറ് എട്ട് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പത്ത് രണ്ട് പന്ത്രണ്ട് ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട്